ഞാൻ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളാണ് അടുക്കള സാമഗ്രിയായിട്ട് പാചകത്തിന് ഉപയോഗിക്കുന്നത് അത് മുമ്പെല്ലാം അലുമിനിയത്തിൻ്റെ ആയിക്കോണ്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞ് അലുമിനിയം വേണ്ടായെന്ന് പറഞ്ഞിട്ട് സ്റ്റീൽ എല്ലാം സ്റ്റീൽ പാത്രം കുക്കർ രണ്ട് സ്റ്റീലിൻ്റെ കുക്കറുണ്ട് പിന്നെ ചോറുവെക്കാൻ കുറെ സ്റ്റീലിൻ്റെ ഇതുണ്ട് കറിക്ക് സ്റ്റീലിൻ്റെ ബൗൾ എല്ലാം മൊത്തം സ്റ്റീൽ തന്നെ അലുമിനിയത്തിൻ്റെ ഒരു സാധനമില്ല എല്ലാം മാറ്റിവെച്ച് ഇനിയിപ്പോൾ പിന്നെ ഒരുപാട് സ്പൂൺ ആളുള്ളത് മൂന്ന് പേര് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോനും മൂന്ന് ആളുള്ളത് പക്ഷെ ഈ പാത്രങ്ങൾ ഒരുപാടുണ്ട് ആവിശ്യത്തിന് എടുക്കും പിന്നെ അതെല്ലാം മീതേ കമിഴ്ത്തി വയ്ക്കും എത്ര പൊടിതട്ടിയിട്ട് വീണ്ടും കഴുകി ഇങ്ങനെ വയ്ക്കുന്ന പണി പിന്നെ എന്തെങ്കിലും ഒരു ആവിശ്യത്തിന് എടുത്ത് വീണ്ടും അത് അങ്ങനെ മുകളിൽ കയറ്റിയിട്ട് വയ്ക്കും പിന്നെ എന്തെങ്കിലും നല്ല ദിവസം എല്ലാം വരുമ്പോൾ ഓണം വിഷു ദിപാവലി അങ്ങനെയെല്ലാം വരുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ എല്ലാം കുറച്ച് ജാസ്തി കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കണ്ടെ അപ്പോഴേയ്ക്ക് ഈ മീത്ത വച്ച് വലിയ പാത്രം എടുക്കും വലിയ പാത്രം എടുത്തിട്ട് അതിലെല്ലാം ഉണ്ടാക്കിവെച്ചു പിന്നെ പിറ്റേ ദിവസം അതിനെ നല്ല നന്നായിട്ട് തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വീണ്ടും അതെ സ്ഥാനത്ത് വെക്കും പിന്നെ വീട്ടിൽ അമ്മേരെ വീട്ടിൽ ആണെങ്കിലും അമ്മേരെ വീട് എന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നിച്ച് ചേരും അമ്മേരെ വീട്ടിൽ നമ്മൾ ആറ് കുട്ടികളാണ് നാല് പെണ്ണും രണ്ടാണും അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചിന് പിന്നെ അമ്മയും നമ്മൾ ആറുപേരും ഒന്നിച്ച് അമ്മേരെ വീട്ടിൽ ചേരും അപ്പോൾ ഒരുപാട് ചിരിയും കളിയും ചേച്ചിമാർ അനിയൻ അമ്മയുമെല്ലാം ഒന്നിച്ചിട്ട് ചിരിയും കളിയും ചോറും കറിയും വെക്കലും വലിയ എല്ലാവരും സഹകരിച്ചിട്ട് ഒന്നിച്ചിട്ട് വലിയ പാത്രത്തിലുണ്ടാക്കി ഒന്നിച്ച് വിളമ്പി കഴിച്ചിട്ട് നല്ലൊരു സുഖമാണ് ആ ജീവിതം അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വലിയ പാത്രം വേണ്ടേ അപ്പോൾ അമ്മേരെ വീട്ടിൽ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് വലിയ വലിയ സ്റ്റീലിൻ്റെ ബൗൾ പിന്നെ സ്റ്റീലിൻ്റെ കറിവെക്കുന്നത് മൂന്ന് കുക്കറുണ്ട് പിന്നെ ഒരു ഡസൻ സ്പൂണുണ്ട് പിന്നെ ചോറിൻ്റെ പ്ലേറ്റ് കറീൻ്റെ പ്ലേറ്റ് കറിയുണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ അമ്മേരെ വീട്ടിൽ അലുമിനിയത്തിൻ്റെ പാത്രമുണ്ട് നോൺ സ്റ്റിക്കുണ്ട് ചപ്പാത്തിയാക്കാൻ നോൺസ്റ്റിക്ക് ദോശയാക്കാൻ വേറെയൊരു നോൺസ്റ്റിക്ക് അങ്ങനെ പല പാത്രങ്ങളുണ്ട് അമ്മേരെ വീട്ടിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ ചുരുങ്ങിയ കണക്കിൻ്റെതെ വാങ്ങുകയുള്ളൂ എൻ്റെ ഭർത്താവ് അതുകൊണ്ട് അത് നോൺസ്റ്റിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിൽ എന്തെല്ലോ നല്ലതല്ല ആ മുകളില്ലത്തെ കോട്ടിങ്ങിൽ എന്തെല്ലോ അസുഖം വരുന്നുവെന്നെല്ലാം പറയുന്ന കേട്ടതുകൊണ്ട് ഇപ്പോൾ നോൺസ്റ്റിക്ക് ഒഴിവാക്കി അപ്പോൾ ദോശക്കല്ലിലാണ് ദോശയും ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് കറിയെല്ലാം സ്റ്റീലിൻ്റെ കുക്കറിൽ ഉണ്ടാക്കും ചോറെല്ലാം സ്റ്റീലിൻ്റെ വലിയ വലിയ അല്ല സാധാരണയുള്ള പാത്രം ബൗൾ പോലത്തെ പാത്രത്തിലുണ്ടാക്കിയിട്ട് കുക്ക് റൈസ് കുക്കറിൽ വെക്കും അങ്ങനെയെല്ലാം സ്റ്റീൽ പാത്രം നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ ഇപ്പോൾ ഗ്യാസ് അടുപ്പൊന്നുമില്ലല്ലോ ഗ്യാസില്ലല്ലേ പാത്രമെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെക്കും അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പാത്രങ്ങളെല്ലാം നന്നായിട്ട് ആവശ്യത്തിനുള്ള പാത്രങ്ങളുമുണ്ട് സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് വെക്കും തേച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ആവിശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ വേണുന്നത് താഴെ വെക്കും വേണ്ടാത്തതെല്ലാം മുകളിൽ കയറ്റിവെക്കും പിന്നെ ആവിശ്യത്തിനെല്ലാം സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് പിന്നെ കുക്കർ കുക്കറും സ്റ്റീൽ തന്നെ പിന്നെ നോൺ സ്റ്റിക്കില്ല ഇത് ചീനച്ചട്ടിയുണ്ട് ദോശകല്ലുണ്ട് അങ്ങനെ അതെല്ലാമുണ്ട് എല്ലാം നന്നായ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വീട്ടിൽ ആവിശ്യത്തിൻ്റെ മാത്രേ ഉള്ളു നല്ല നീറ്റായിട്ട് വെച്ചിട്ട് ഉണ്ട്